ഈ റോഡ് പണി നടക്കുകയാണല്ലോ അപ്പോള് എനിക്ക് കറക്റ്റ് പത്തരയ്ക്ക് എത്തേണ്ടതാണ് അപ്പോള് ഇനി ഈ ഇത് നമ്മുടെ റോഡ് വേറെ വഴിക്കാണല്ലോ പോകുന്നതിപ്പോള് നമ്മള് ഡൈവേർട്ട് എടുത്തില്ലായിരുന്നോ റോഡ് പണി ആയതുകൊണ്ട് നമുക്ക് ശരിയായ റോട്ടില്കൂടെ പോവാൻ പറ്റിയില്ല നമ്മള് വളഞ്ഞ് തിരിഞ്ഞ് എനിക്ക് പത്തര ആവുമ്പോഴേക്ക് എത്തണം പക്ഷേ ഇത് കണ്ടിട്ട് ലേറ്റ് ആവുമെന്നാണു തോന്നുന്നേ അപ്പോള് നമ്മള് എയഞ്ഞ് എപ്പോഴാണ് അവിടെ എത്തിച്ചേരുന്നത് അവിടെ ഓഫീസ് ടൈം ആക ആകണേക്ക് മുന്നെ എനിക്ക് എത്തണമായിരുന്നു എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അതീക്ക് മുന്നെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു അത് സമയം എപ്പോഴാണ് എത്തിച്ചേരു ചേരുന്നൊന്ന് പറയുമോ